ഞാൻ ഈയിടെ ഒരു ഹെഡ് ഫോൺ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈയിടെയെന്ന് പറയുമ്പോൾ രണ്ടാഴ്ച മുൻപാണ് ഹെഡ് ഫോൺ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ നല്ലൊരു കമ്പനിയുടെ ഹെഡ് ഫോൺ തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പറഞ്ഞ സമയത്തു തന്നെയാണ് വരുകയും ചെയ്തത് അപ്പോൾ നമുക്കത് കമ്പനി ഇറക്കണ സമയത്തുള്ള വിലയെക്കാട്ടിലും നല്ല ലാഭത്തിനാണ് അത് കിട്ടിയത് എന്നു വെച്ചു കഴിഞ്ഞാൽ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല കുഴപ്പമില്ലാത്ത ഹെഡ്സെറ്റ് ആണ് അത് പിന്നെ നമുക്കതിനെക്കുറിച്ച് നോക്കുകയാണ് പറയുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക അത്യാവശ്യം നോയ്സിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല മറ്റേ സ്വെറ്റ് റിഡക്ഷൻ ഉണ്ട് വാട്ടർ പ്രൂഫാണ് അപ്പോൾ എനിക്കത്യാവശ്യം നല്ലൊരു റേറ്റിങ്ങും കാര്യങ്ങളാണ് എനിക്കതിനെക്കുറിച്ച് തോന്നിയത്